കോഴിക്കോട് ജില്ലയിലെ കാലാവസ്ഥ എങ്ങനെ ഉള്ളതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം ഭയങ്കര ചൂടുള്ള ഒരു കാലാവസ്ഥയാണ് നമുക്കിപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഉണ്ടാവുന്നത് അപ്പോൾ പിന്നെ നമുക്ക് എപ്പോഴും ഏകദേശം എല്ലാ ദിവസങ്ങളിലും നമുക്ക് ഭയങ്കര ചൂട് കാര്യങ്ങളൊക്കെയാണ് അനുഭവപ്പെടാറ് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം ഇപ്പോൾ മഴയൊക്കെ കിട്ടുന്ന സമയത്ത് മാത്രമേ നമുക്ക് കുറച്ചു തണുപ്പും കാര്യങ്ങളുമൊക്കെ ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ മഞ്ഞുകാലമാണെങ്കിൽ നമുക്ക് ഒരു അതായത് ഒരു ഏഴ് മണി ഏട്ട് മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ചൂടാണ് നമുക്ക് പുറത്ത് അതായത് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു ചൂടാണ് അപ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് കഠിനമായിട്ടുള്ള ശക്തിയൊക്കെ ആയിരിക്കും പിന്നെയെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ വെള്ളപ്പൊക്കം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും പോലെ രണ്ടായിരത്തി പതിനെട്ട് ആ ഒരു സമയത്താണ് വെള്ളപ്പൊക്കം കാര്യങ്ങളൊക്കെ വന്നത് തന്നെ പിന്നെ ഈയൊരു സമയത്തെന്നു വെച്ചാൽ നമുക്ക് മഴയൊക്കെ വളരെ കുറവാണ് അപ്പോൾ നല്ലൊരു വെയിലുള്ള ഒരു കാലാവസ്ഥയാണ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കഠിനമായിട്ടുള്ള ഒരു ചൂടു തന്നെയാണ് അപ്പോൾ പിന്നെ പണ്ട് അതായത് കുറച്ചു മുന്നെയൊക്കെ നമുക്ക് സൂര്യാഘാതം കാര്യങ്ങളൊക്കെ ഏറ്റ ഒരു ഒരുപാട് നമ്മുടെ ജില്ലയിൽ തന്നെയുണ്ട് ഇപ്പോൾ പിന്നെയെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഭയങ്കര അതായത് ചൂട് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് വളരെ അധികം ഉണ്ട് ഈ കോഴിക്കോട് ജില്ലയിൽ